നല്ല വൈദ്യസഹായം ലഭികുന്നതിന് ദാരിദ്ര്യം ഒരു തടസ്സം തന്നെയാണ് കാരണം ദാരിദ്ര്യം എന്നു പറയുന്നത് അവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരിക്കില്ല എല്ലാവരെയും എല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും അവരെ കയ്യിൽ ഒന്നുണ്ടായില്ല അവർ തെണ്ടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ദാരിദ്ര്യം എന്നു പറയുന്നത് ഏകദേശം അങ്ങനെ തന്നെയാണ് അവരുടെ അവർക്കെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാൻ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയെങ്കിലും അവിടെ കാശ് കൊടുക്കണം കാശു കൊടുക്കാണ്ട് ഫ്രീ ആയി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ നഗരങ്ങളിൽ നഗരങ്ങളിൽ നഗരങ്ങളിൻ്റെ പ്രത്യേകത എന്നു പറയുന്നത് തന്നെ ഹോസ്പിറ്റൽ കുറേ ഫെസിലിറ്റിസ് ഉണ്ടാകും പക്ഷേ ഗ്രാമങ്ങളിലെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എല്ലാം വളരെ ചുരുക്കമായിരിക്കും ഗ്രാമങ്ങളിൽ നിന്ന് ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും കഴിയാതെ എന്തെങ്കിലും ആയെങ്കിൽ തന്നെ എല്ലാവരും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോവണം അതിനു തന്നെ പോകാൻ തന്നെ കുറേ സമയം എടുക്കും ഈ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നെങ്കിൽ തന്നെ അതിന് ഗ്രാമങ്ങളിൽ ഹോസ്പിറ്റലും അങ്ങനെ ആശുപത്രി അങ്ങനെ ഒന്നും ഉണ്ടാ അങ്ങനെയൊന്നുമില്ല അപ്പോൾ പിന്നെ ഓരത് സഹിക്കണം എല്ലാവരും സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഗ്രാമങ്ങളിൽ ഏകദേശം കാണുന്ന അവർ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലുള്ള അതേ ഇതുതന്നെ നഗരങ്ങളിലേക്ക് വരണമെന്നാണ് പക്ഷേ ഗ്രാമവും നഗരവും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ സ്ഥലമാണ് എന്തെന്ന് പറഞ്ഞെങ്കിൽ കാടുകളും ചെടികളും മലകളും അരുവികളും കുന്നുകളും എല്ലാം ഉള്ള സ്ഥലമാണ് ഗ്രാമം നഗരം എന്ന് പറയുന്നത് കാശിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഫുള്ളും റോഡും റോഡ് റോഡിൽ പോകുന്ന ഒരു പ്രകൃതി ഭംഗി തന്നെ ആസ്വദിക്കാൻ കഴിയാത്ത സ്ഥലമാണ് നഗരം നഗരങ്ങളിൽ ജീവിക്കുന്ന ഏകദേശം ആൾക്കാർക്കാരും അവരവരുടെ സ്വന്തം കാര്യമായി ജീവിക്കുന്ന ആൾക്കാരാണ് സ്വന്തം ജീവിതത്തിനു വേണ്ടി ജീവിക്കുന്നതാണ് അവർക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ ഇല്ല ഇപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ജോലി ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ എല്ലാവരും ഒരേ പോലെയല്ല എന്നെങ്കിലും ഏകദേശം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അവർക്ക് ഈ നന്നായിട്ട് അവർക്ക് ഈ പ്രകൃതി ആസ്വദിക്കാനുള്ള സമയം അതൊന്നും നൽക്കുന്നില്ല സംഭവം ഇപ്പഴ് രാവിലെ ജോലിക്ക് പോയെങ്കിൽ തന്നെ പിന്നെ വരുന്നത് വൈകിട്ടാവും വൈകിട്ട് ആയിരിക്കും അത് കഴിഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങും പിന്നെ പിറ്റേ ദിവസം രാവിലെ പോകണം വൈകിട്ട് വരണം അങ്ങനെയാണ് പക്ഷേ ഗ്രാമം എന്ന് പറയുന്നത് അങ്ങനെയല്ല വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഗ്രാമത്തിൽ ഉണ്ടാകുന്നത് അവിടെയുള്ള അരുവികളും കുന്നുകളും കാടുകളും മലകളും എല്ലാം ഒരു പ്രകൃതി ഭംഗി ആസ്പദമാക്കിയാണ് അവിടെ ഉണ്ടാകുന്നത് എല്ലാ ഗ്രാമത്തിൽ ഇങ്ങനെ ആശുപത്രി അങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം വളരെ കുറവ് തന്നെ ആയിരിക്കും ആശുപത്രിയിലേക്കാണ് മറ്റും എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അത് നഗരങ്ങളിലേക്ക് പോവേണ്ടി വരുന്നത് കൊണ്ടാണ് എപ്പളും എല്ലാവർക്കും അത്യാവശ്യ ഘട്ടത്തിൽ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കീലും വന്നെങ്കിൽ അതിന് കുറേ ദൂരങ്ങളിൽ ദൂരമായിരിക്കും പോകണ്ടത് അടുത്തൊന്നും ആശുപത്രി ഉണ്ടാവില്ല അവരെ കൈയിൽ അത്ര പൈസ ഉണ്ടായില്ല എൻ്റെ അഭിപ്രായത്തിൽ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ആശുപത്രി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവരണമെന്നാണ് എന്നു തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് അത്രയും അവരെല്ലാവരും ഒരു കുറച്ച് ചിലവിൽ കുറഞ്ഞ ചിലവിൽ ജീവിക്കുന്നവരായിരിക്കും വളരെ ഒത്തൊരുമയുള്ള ആൾക്കാരായിരിക്കും എപ്പോഴും എല്ലാവരും ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത് അവർക്ക് വേറെ ഇപ്പോൾ ഒരാൾക്ക് സഹായത്തിന് എന്തെങ്കിലും വന്നാൽ മറ്റൊരാൾ സഹായിക്കും പക്ഷേ ആൾക്കാരെ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത കുറേ അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ആശുപത്രിയിലത്തെ കുറേ മരുന്നുകളും ഗുളികകളെല്ലാം കുടിച്ചിട്ട് നേരാകുന്ന ആൾക്കാർ ഉണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവൾ അവർ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവർ ജീവിക്കുന്നത് തന്നെ ഈ പണി അവരുടെ പണി തന്നെ ഈ കൾചർ അവരുടെ പണിയാണ് ഈ ചെടികളും കൃഷികളും എല്ലാം നട്ടു വളർത്തി ജീവിക്കുന്നവർ അവരായിരിക്കും അവർക്ക് അസുഖം വരാൻ വളരെ കുറവാണ് കാരണം അവർ തിന്നുന്നത് ഫലപൂഷ്ടമായ മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന വസ്തുക്കളും ഭക്ഷണങ്ങളും എല്ലാമായിരിക്കണം അവർ തിന്ന് തിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അധികം അസുഖങ്ങൾ ഒന്നും വരാറിണ്ടാ വരാൻ സാധ്യത ഇല്ല അവർ ജീവിക്കുന്ന ഫുഡ് ഭക്ഷണം എല്ലാം ഒരു വ്യത്യസ്തമായതാണ് ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ തിന്നുന്നത് വളരെ പുറത്തു നിന്ന് കൊണ്ടു വരുന്ന സാധനങ്ങളാണ് അതിൽ വിഷാംശങ്ങൾ മറ്റു പല വസ്തുവകകളും അടങ്ങി ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അസുഖ രോഗമുള്ള ആൾക്കാർ വളരെ കൂടുതലായിരിക്കും അവിടെ ആശുപത്രികളും വളരെ കൂടുതലാണ് ഗ്രാമങ്ങളിൽ ആശുപത്രികൾ വളരെ വളരെ കുറച്ചാണ് ഒന്നോ രണ്ടോ മാത്രമേ ഉണ്ടാവാറുള്ളൂ കാരണം എന്താണെന്ന് വച്ചെങ്കിൽ അവർക്ക് അസുഖം അങ്ങനെ ഉണ്ടാവാറില്ല അവരുടെ ഭക്ഷണം തന്നെ നല്ല ഭക്ഷണായിരിക്കും നല്ല ഭക്ഷണമായിരിക്കും അവരുടെ വളം തന്നെ കൃഷി ചെയ്യ്തിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അത് കൊണ്ട് തന്നെ അവർക്ക് അസുഖം വളരെ കുറവായിരിക്കും അന്നെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എങ്കിലും ഒരു വൈദ്യസഹായം ലഭിക്കുന്നത് നല്ലത് തന്നെയാണ് ദാരിദ്രം എന്ന് പറയുന്നത് എല്ലാ എല്ലാവരും അല്ലങ്കിലും ആ ഗ്രാമങ്ങളിലുള്ള ഏകദേശം ആൾക്കാരും ദാരിദ്ര്യം ഉള്ളവർ തന്നെയായിരിക്കും അവർക്ക് പൈസ വളരെ പൈസ ഇല്ലാത്ത ആൾക്കാർ ആൾക്കാറായിരിക്കും എല്ലാവരും വളരെ കുറഞ്ഞ ചിലവിൽ ജീവിക്കുന്നവരാണ് അവർ എല്ലാവരും ഒരേ പോലെ അല്ലാന്നെങ്കിലും കുറച്ചെല്ലാം ആൾക്കാർ അങ്ങനെ തന്നെയാണ് ദാരിദ്യ്രത്തിൽ ജീവിക്കുന്നത് ആൾക്കാരാണ് അവിടെ ഫുള്ളും കർഷക സ്ത്രീകളാണ് സ്ത്രീകൾ പോലും അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പണി എടുക്കുന്നുണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ നഗരത്തിൽ ഉള്ളത് പോലെ അല്ല ഗ്രാമമെന്നു പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഗ്രാമത്തിലുള്ളവർക്ക് പരസ്പരം സഹായിക്കാനും പരസ്പരം ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പരസ്പരം അപ്പുറം ഇപ്പുറവുമെല്ലാവരും സഹായിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ദാരിദ്യ്രം ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും ഭയങ്കര ഇപ്പോൾ ഓരോരോ ആൾക്ക് ഓരോരോ ആൾ ഇതാണ് കുറേ ആൾക്കാർക്ക് കുറേ കാശുണ്ടാവും കുറേ ആൾക്കാർക്ക് കാശില്ല എന്നാൽ കാശുള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും ഭയങ്കര കാര്യം ഭയങ്കര ഇത് കാശില്ലാത്ത ആൾക്കാർ എപ്പോഴും പാവങ്ങൾ തന്നെയാണ് അവർ ആർക്കും ഒരു ഇതുമില്ല ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് കാശാണ് പൈസ ഇല്ലെങ്കിൽ അവിടെ എല്ലാം പോയി പൈസ ഇല്ലെങ്കിൽ അവർക്ക് ആരേം വേണ്ട പൈസ ഉണ്ടങ്കിൽ എല്ലാം കിട്ടും അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു പണി കിട്ടണങ്ങന്നെ നമ്മൾ പൈസ അങ്ങോട്ടേക്ക് കൊടുത്തത് എങ്ങനേ തന്നെ നമുക്ക് പണി കിട്ടൂ ഈ പണി വേണമെന്നങ്ങനെ പറഞ്ഞങ്ങനെ പൈസ കൊടുത്തങ്ങനെ മതി അപ്പം നമുക്ക് പണി കിട്ടും അങ്ങോട്ടേക്ക് തന്നെ പൈസയാണ് എല്ലാം ഈ കാശുണ്ടാകുന്നത് തന്നെ കാശുണ്ടാകുന്നവർക്കേ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുള്ളൂ ഇപ്പോഴത്തെ കാലം എന്നു പറയുന്നത് അങ്ങനെയാണ് നമ്മൾ തന്നെ ഇപ്പോ പൈസ ഇല്ല എങ്കിൽ ആരോടെങ്കിലും ചോദിച്ചങ്കിൽ തന്നെ ആരും തരേല നമ്മളാരും മൈൻഡ് ആക്കുകയില്ല പൈസ ഇല്ല എങ്കിൽ സുഹൃത്ത് ബന്ധംപോലും അവിടെ ഇല്ലാണ്ടാണ് പൈസ ഇപ്പഴും എല്ലാവർക്കും ആവശ്യമാണ് കുറേ കുറേ പൈസ കാരണം ഇപ്പോൾ കുറേ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടാവും കാരണമിപ്പോൾ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ പരസ്പരം ബന്ധമുള്ള ആൾക്കാറായിരിക്കും പക്ഷേ നഗരങ്ങളിലുള്ള ആൾക്കാർ പരസ്പരം ബന്ധമുണ്ടായില്ല സ്വന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവരായി അവരുടെ കാര്യായി ആ ഒരിത് കാശായി അങ്ങനെ കാശെന്നു പറയുന്നത് എല്ലാവർക്കും വേണം കാശുള്ളവരെയാണ് എല്ലാവർക്കും വേണ്ടത് നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞെങ്കിൽ ൽ നഗരത്തില് എപ്പളും എപ്പളും ഒരു ശബ്ദമായിരിക്കും ശബ്ദം മീൻസ് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ വയ്യത്ത ശബ്ദം ഉണ്ടായില്ലേ ഇപ്പോൾ കാറിൻ്റെ ശബ്ദം ആട ഫുൾ വാഹനങ്ങളന്നെയായിരിക്കും പക്ഷേ ഗ്രാമത്തില് നല്ല അരുവികളുടെ ശബ്ദവും കിളികളുടെ ശബ്ദവും അങ്ങനെ സഗ് അങ്ങനെന്തെങ്കിലും ആയിരിക്കും ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്നു പറയുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് ആ പക്ഷേ അവർക്ക് സ്നേഹിക്കാനുള്ള മനസുണ്ടാകും ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നെങ്കിലന്നെ അവര് ബാക്കിയുള്ളവരെ സഹായിക്കും ബാക്കി ഉള്ളോരെ സ്നേഹിക്കും പക്ഷേ ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ഉള്ള ആൾക്കാർ അങ്ങനല്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നരാണ് അവർക്ക് ബാക്കിയുള്ളോടെ കാര്യം എന്തു വന്നാലും അറിയണ്ട നമുക്ക് ഗ്രാമങ്ങളിലും ആശുപത്രി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും കുറച്ച് സഹായമാട്ടിന് ഇതിപ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എപ്പളും അങ്ങനെ തന്നെയാണ് ഏകദേശം പണ്ടു കാലങ്ങളിലെല്ലാം വളരെ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് കാലം എന്നു പറയുന്നത് അങ്ങനെ ആ ണ് എല്ലാരോക്കാം നിന്നിട്ട് ഒക്കെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോളെന്ന് പറയുന്നത് അങ്ങനെ അല്ല പൈസ എല്ലാവരും പൈസ പൈസ പൈസ പൈസെൻ്റെ ബാക്കിലാണ് എല്ലാവരും പോകുന്നത് ആർക്കും സ്നേഹമാവില്ല സന്തോഷമാവില്ല ഇപ്പോൾ ഫുള്ളും പണ്ട് തൽക്കാലം അപ്പുറവും ഇപ്പുറവും സംസാരിക്കാമായിരുന്നു എല്ലാവരോടും പരസ്പരം ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല ആരും മറ്റുള്ളവരോട് മിണ്ടാൻ നിൽക്കില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കയാണ് ഫോണ് മറ്റു പല സാധനങ്ങളും അവരുടെ അവരുടെ ഇഷ്ട്ടത്തിനായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും പ്രകൃതി ഭംഗി എന്താണെന്ന് പറഞ്ഞെങ്കിൽ പോലും അവർക്ക് അറിയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പം ഉള്ളത് പണ്ടത്തെ ആൾക്കാർ എന്നു പറഞ്ഞെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടെയും പരസ്പരം ബന്ധമുണ്ടായാണ് കുടുംബക്കാരെയും എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആർക്കും ആർക്കും അപ്പുറം മിപ്പ്രം ഒരു ബന്ധവുമില്ല കുടുംബക്കാരോട് പോലും ആരും സംസാരിക്കാൻ തയാറല്ല എല്ലാവരും വളരെ വളരെ വളരെ മാറിപ്പോയി പണ്ടത്തേക്കാലവും ഇപ്പത്തെക്കാലോം വച്ച് നോക്കിയാൽ വളരെ വ്യത്യാസമാണ് കുറേ വ്യത്യാസമാണ് പണ്ടും ഇപ്പവും ഇപ്പോഴും ഉള്ള കാര്യങ്ങൾ പണ്ട് പണ്ട് സ്നേഹം സന്തോഷം അങ്ങനെല്ലാമായിരുന്നു ഇപ്പോഴാർക്കും സ്നേഹമില്ല സന്തോഷമില്ല പരസ്പരം സംസാരിക്കുക പോലുമില്ല ആരും അത്രക്കും ആൾക്കാർ മാറി പ്പോയി ഇപ്പോൾ ഇനി വരുന്ന ജനറേഷനും അങ്ങനെ തന്നെയാണ് എല്ലാവരും പരസ്പരം മാറി മാറി മാറിയാണ് നിൽക്കുന്നത് ആരോടും അടുക്കാനും ആരോടും സ്നേഹം കാണിക്കാൻ ഒന്നും നിൽക്കുന്നില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാണ്